ഹലോ ആ ഇത് ന്യൂ ഫോം റെസ്റ്റോറന്റ് അല്ലേ ആ ഞാൻ കുറച്ചുനേരം മുമ്പ് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് പറയാൻ വേണ്ടിയിട്ട് താമരശ്ശേരിയിൽ നിന്ന് ആ അതുതന്നെ അപ്പോൾ ഞാൻ നിങ്ങളോട് മന്തിയും പിന്നെ നാന് അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു പറഞ്ഞിരുന്നത് അതെ അതെ ആ ഒരു ഫുൾ മന്തിയും ഒരു നാല് ബട്ടർ നാനായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് പാലക്ക് പനീർ അതൊക്കെയാണ് പറഞ്ഞത് അതെ അതെ പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ നോക്കുമ്പോൾ ബിരിയാണിയാണ് ബിരിയാണിയും ചപ്പാത്തിയും പിന്നെ വെജിറ്റബിൾ കറിയുമാണ് നിങ്ങൾ ഇപ്പോൾ കൊടുത്തുവിട്ടിരിക്കുന്നത് അതെന്താണ് അല്ല ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് അല്ല എനിക്ക് വന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ആ നിങ്ങൾ നമ്മൾ പേ ചെയ്തിട്ടാണല്ലോ നിങ്ങൾ ഈ ഫുഡ് കൊണ്ടുത്തരുന്നത് അപ്പോൾ നിങ്ങൾ ഫുഡ് ചെക്ക് ചെയ്യാണ്ടാണോ ഫുഡ് കൊടുത്തുവിടുന്നത് അത് മോശമല്ലേ ഓക്കേ ഞാനിപ്പോൾ പുറത്തു പോകുന്ന അർജന്റ് ഉള്ളതു കൊണ്ടായിരുന്നു ഞാൻ ഫുഡ് ഓർഡർ ചെയ്തത് അപ്പോൾ നിങ്ങളിതെന്താണ് ഇങ്ങനെ അയക്കുന്നത് ഓക്കേ ഓക്കേ എന്നാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ കൊടുത്തു വിടൂ എനിക്ക് കഴിച്ചിട്ട് ഒരു വഴി വരെ പോകാനുള്ളതാണ് നിങ്ങൾ ഫുഡ് കൊടുത്തു വിട്ടിട്ട് ഇത് റിപ്ലൈ ചെയ്യാൻ പറയു ആയിക്കോട്ടെ ഓക്കെ താങ്ക് യു